എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ആരാധകരെ ആകർഷിക്കുന്ന കായികമെന്ന് പറയുമ്പോൾ മിക്കവാറും അത് ഫുട്ബോളും ക്രിക്കറ്റും തന്നെയായിരിക്കും ക്രിക്കറ്റിനെക്കാട്ടിലും കൂടുതൽ എന്തായാലും ഫുട്ബോളായിരിക്കും കാരണം എന്താന്ന്ച്ച്ഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമെടുത്തു ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ പോലത്തെ ഇൻസ്റ്റാഗ്രാമെടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഈ ഫുട്ബോൾ താരങ്ങൾക്കായിരിക്കും ഫുട്ബോൾ താരങ്ങൾക്കൊക്ക നല്ല ഫോളോവേഴ്സുണ്ടാവും കാരണം അത് കാണാൻ തന്നെ നല്ല രസമാണ് അത് ഒട്ട് മിക്ക ആൾക്കാർക്കും കളിക്കാനും കാണാനും നല്ലൊരു രസമുള്ളൊരു കായികമാണ് ഈ ഫുട്ബോളെന്ന് പറയുമ്പോൾ ഇപ്പോൾ അത് സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാണീ ഫുട്ബോള് അതിൽ ഇപ്പോൾ താരം ഫുട്ബോൾ താരങ്ങളെന്ന് പറയുമ്പോൾ മെസ്സി റൊണാൾഡോ നെയ്മർ ഇവര്ൻറ്റെക്കെ കളി ഇൻവര്ൻറ്റെക്കെ കളി കാണാൻ തന്നെ നല്ല രസമാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് ആരാധകരുണ്ട് അതേപോലെയാണ് ക്രിക്കറ്റെന്ന് പറയുന്നതൊരു കായികം ക്രിക്കറ്റിനും ഇതേപോലെ താരങ്ങൾ കുറെ പേരുണ്ട് ഹാർദിക്ക് പാണ്ടിയ വെയ്ക്ക്വാദ് രോഹിത് ശർമ്മ ഇങ്ങനെ ധോണി ഇങ്ങനെയൊക്കെ ഒരുപാട് താരങ്ങളുണ്ട് എനിക്ക് എന്തുകൊണ്ടും ഫുട് ബോളിനേക്കാട്ടിലും ഇഷ്ടം ക്രിക്കറ്റാണ് കാരണം എന്താന്ന്ച്ച്ഴിഞ്ഞാൽ എനിക്ക് ഫുട്ബോളിനേക്കാളും കൂടുതൽ കളിക്കാനറിയാവുന്നതും എനിക്ക് കൂടുതൽ അറിയാം അതിനെപ്പറ്റി അറിവും ഫുട്ബോളിനേക്കാട്ടിലും എന്ത് കൊണ്ടും എനിക്ക് ക്രിക്കറ്റിലാണ് അതുകൊണ്ട് എനിക്ക് ഫുട്ബോളിനേക്കാളും കൂടുതൽ ഇഷ്ടം ക്രിക്കറ്റാണ് ഫുട്ബോള് എനിക്ക് അധികം എങ്ങിനെയാണ് കളി കളിക്കേണ്ടത് എങ്ങനെയാണ് അതിൻ്റെ എന്തൊക്കെയാണ് റൂൾസ് അതിനെപ്പറ്റീട്ടൊന്നും എനിക്ക് അധികം അറിയില്ല അതുകൊണ്ട് എനിക്ക് ക്രിക്കറ്റാണ് കൂടുതൽ ഇഷ്ടം പിന്നെ ടെന്നീസ് ടെന്നീസിലൊക്കെ ടെന്നീസിലെ കുറച്ച് താരങ്ങളാണ് റഫേൽ നദാൽ റോജർ ഫെർ ഫെഡറർ പിന്നെ ജോക്കോവിച്ച് ഇവരൊക്കെ ടെന്നീസിലെ താരങ്ങളാണ് അപ്പോൾ ടെന്നിസും കാണാൻ നല്ല രസമാണ്